ഇപ്പം കേരള സംസ്ഥാനത്തിലെ സർക്കാര് എല്ലാ പൗരൻമാർക്കും ഒരു ഇതാണ് നൽകുന്നത് കാരണം ഏത് പാർട്ടിയിലായാലും സ്വതന്ത്രമായിട്ട് ആർക്ക് വേണമെങ്കിലും ചേരാനും അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനും ഉള്ള അവസരം എല്ലാ പാർട്ടിയിലും നൽകുന്നും ഉണ്ട് അതായത് പാർട്ടി ബേസില് നിന്ന് കഴിഞ് കഴിഞ്ഞാൽ ഒരു പാർട്ടിയില് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളും മുൻഗണനയും എല്ലാം ആ പാർട്ടിയിൽ നിന്ന് തന്നെ അവര് കൊടുക്കുകയും അവർക്ക് മത്സരിക്കാനുള്ള അവസരം നൽകുകയും അവർക്ക് മത്സരിച്ച് നല്ല ഒരു സ്ഥാനത്ത് എത്തിച്ചേരാനും എല്ലാ പാർട്ടികളും സർക്കാരും അവർക്ക് അതിന് വേണ്ട കാര്യങ്ങള് ചെയ്ത് കൊടുക്കുന്നതും ആണ് ഇന്നത്തെ അതായത് അതായത് ഇപ്പം പീഡനത്തിൽ നിന്നുള്ള സ്വാതന്ത്രം അതായത് ഏത് പൗരൻമ്മാർക്കും എന്ത് കാര്യങ്ങളും അതായത് ഇപ്പം ഒരാൾക്ക് മാത്രായിട്ട് പ്രത്യേകിച്ചുള്ള നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും വേണ്ട നിയമങ്ങള് കൃത്യമായിട്ട് അവർക്ക് ഇതാക്കും അതായത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സ്വാതന്ത്ര്യവും സമത്വവും സുരക്ഷിതത്വവും ഉള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് കിട്ടാനും അത് അതായത് കൃത്യമായ രീതിയില് തന്നെ അത് മുന്നോട്ട് കൊണ്ട് പോകാനും എല്ലാ പാർട്ടിയിലും സർക്കാര് അതായത് എല്ലാ പൗരന്മാർക്കും ഉള്ള എന്താ പറയുക ഒരു അവസരം സർക്കാര് നല്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം